എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ പ്രായത്തിൽ മുതൽ കുട്ടികൾക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് അവരുടേതായ സേവിങ്സ് ഉണ്ടാക്കാനായി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വളർന്നു വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സേവിങ്സ് അവർക്ക് എടുത്തു വെയ്ക്കേണ്ടതായിട്ടുണ്ട് അത് എന്താണന്ന് ചോദിച്ചാൽ അവർക്ക് പഠിക്കാനുള്ള ഇപ്പം അവർ വലിയ ക്ലാസിൽ എത്തുമ്പോഴാണെങ്കിലും അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവർ ചെറിയ തുക ആദ്യമേ എടുത്തു സൂക്ഷിച്ചു വെക്കണം അല്ലെങ്കിൽ വലുതായാൽ അവർ ജോലിക്ക് ഒക്കെ പോയി കയ്യിൽ പൈസ ഒക്കെ കിട്ടിയാൽ അത് അവർ ആനാവശ്യമായി ചിലവാക്കുകയും പിന്നീട് ജി ഭാവി ജീവിതത്തിലേക്ക് അവർക്ക് സേവിങ്സ് ഇല്ലാതാവുകയും ആണ് ചെയ്യുന്നത് അതുകൊണ്ടുത്തന്നെ കുട്ടികളെ എന്തിനാണ് സേവിങ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു പൈസ ഒരു നിശ്ചിത പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് ഒരു കാര്യം അവരെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാം അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് തന്നെയാണ് ഇപ്പം ഭാവിയിൽ എന്തെങ്കിലുമൊരു ഇപ്പം കൊറോണ സമയം തന്നെ ആ സമയത്തൊന്നും ഒരാൾക്കും ഒരു ജോലി പോലും ഉണ്ടായിട്ടില്ല ആ കാലഘട്ടങ്ങളിൽ അവർ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കുടുംബം കഴിഞ്ഞുപോയത് അവരുടെ സേവിങ്സിൽ നിന്നും ഒരു നിശ്ചിത തുക എടുത്തിട്ടാണ് അപ്പം നമുക്ക് സേവിങ്സ് ഇല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമോ എന്തെങ്കിലും ഒരു ഫാമിലി മാറ്ററോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സേവിങ്സ് എമൗണ്ട് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടതായിട്ട് വരും അതുകൊണ്ടുത്തന്നെ അവർക്ക് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുകയും അവരെ അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്